മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ചില പൊതുവായ നിയന്ത്രണങ്ങളും നിയമപര പിന്നെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈനായിട്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കർഷക അതായത് കർഷക ഏരിയകളിലൊക്കെയെന്നു പറയുന്ന പന്നി ശല്യം ആന ശല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽത്തന്നെ നമുക്ക് അതായത് കർഷകർക്ക് ഭയങ്കര അത് ബുദ്ധിമുട്ടാണ് കരണമെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നെൽക്കൃഷി പിന്നെ വാഴക്കൃഷി അങ്ങനെയുള്ള ഒരുപാട് കൃഷി ഇഞ്ചിക്കൃഷി മഞ്ഞൾ കൃഷി പിന്നെ അങ്ങനെ ഒരുപാട് കൃഷി കൃഷികളുണ്ടാകും അപ്പം ആ കൃഷിക്കൊക്കെ അതായത് നാശം വിതക്കുന്നതാണീ പന്നികൾ ആനകളൊക്കെ അതായത് ആനയൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു രക്ഷയുമില്ല പിന്നെ ആനയൊക്കെ വന്നുകയറിയിട്ട് നമുക്കാ കൃഷി മുഴുവൻ നഷ്ടമായി നഷ്ടമായിപ്പോകും പിന്നെ അതുപോലെതന്നെ നമുക്ക് പറയാനാണെങ്കിൽ പിന്നെ പന്നി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽത്തന്നെ പന്നികൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെ കയറിനിരങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കാ കൃഷിയൊക്കെ നഷ്ടമാകും അതായത് നമ്മൾ വലിയ നഷ്ട്ത്തിലേക്ക് പോകും അപ്പം ഇതൊക്കെ അങ്ങനത്തെ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ മാക്സിമം നമ്മൾ നോക്കും അതായത് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കും പിന്നെ എന്നിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലോ അവിടെ കോടതിയിലോ അങ്ങനെയൊക്കെ കേസുകൊടുക്കും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും